സ്കൂളിൽ നമ്മളെപ്പോഴും കുട്ടികളെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുക കുട്ടികളെ നമ്മൾ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് നമുക്കറിയാവുന്ന ലോക കാര്യങ്ങളും അറിവുകളും ചെറിയ ചെറിയ കാര്യങ്ങളു എല്ലാം നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി അവരെ ശ്രമിക്കാം പിന്നെ നല്ല ശീലങ്ങളും നല്ല രീതിയിലൊരു കുട്ടിയെ വളർത്തിക്കൊണ്ടു വരുക അവരെ നാളത്തെ ഒരു പൗരനാണ് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പൗരനായി മാറേണ്ട ഒരാളാണ് നമ്മുടെ കുട്ടി എന്ന ചിന്തയോട് കൂടി ഒരധ്യാപകൻ ആ കുട്ടിയെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നൊരു കുട്ടിയെ നമുക്ക് വളർത്തി കൊണ്ടുവരാൻ സാധിക്കും കാരണം കുട്ടികൾ എപ്പോഴും സ്കൂളിലാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത് പല മാതാപിതാക്കളും പറയാറുണ്ട് അധ്യാപകർ പറഞ്ഞാൽ കേൾക്കും നമ്മൾ മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കില്ല കാരണം കുട്ടികൾ കൂടുതൽ സമയവും നമ്മുടെ കൂടെയാണ് എപ്പോഴും ചിലവഴിക്കുന്നത് അവരുടെ നല്ല ഒരു ദിവസത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റായ സമയങ്ങൾ മുഴുവൻ നമ്മളോടൊപ്പാണ് ഈ കുട്ടി ചിലവഴിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്കൊരു വാത്സല്യം ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ നല്ല ശീലങ്ങളും നല്ല ഒരു പൗരനാണ് നാളത്തെ ഒരു നല്ലൊരു പൗരനാണ് നമ്മുടെ മുന്നിലിരിക്കുന്നതെന്നുള്ള രീതി നമുക്ക് ഇവരുടെ ഇവരെ കു വളര്ത്തി കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്കിപ്പോൾ എല്ലാത്തിനുമൊരു റെസ്ട്രിക്ഷനുമുണ്ട് കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് പണ്ടത്തെ കാലത്തെന്ന് അടിച്ചും തല്ലിയും ഒക്കെ നമുക്ക് ഒരു കുട്ടി എന്തെങ്കിലും ഒരു ചീത്ത സ്വഭാവം കാണിച്ചാൽ ആ കുട്ടിയെ നമുക്ക് വഴക്കുപറയോ അടിക്കോ ഒരടിയൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പേടി ആയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ തലമുറയിൽ നമുക്കിതൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല അപ്പം നമുക്ക് തല്ലാൻ സാധിക്കയില്ല അതുപോലെ തന്നെ വഴക്ക് വഴക്ക് പറയാൻ തന്നെ ഒരു പരിധിവരെ നമുക്ക് സാധിക്കത്തുള്ളു അപ്പം കുട്ടികളിലത് വലിയൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട് അത് മിസ്യൂസ് ചെയ്യുന്ന കുറെ കുട്ടികളും ഉണ്ട്

അതുപോലെ തന്നെ കുട്ടികളോട് നമ്മളൊരുപാട് ഹാർഷായിട്ട് സംസാരിക്കോ അവരെ മറ്റുള്ളവരുടെ മുമ്പിലിട്ട് വേദനിപ്പിക്കോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കുട്ടികളുടെ മാനസിക വളർച്ചയെ ബാധിക്കാറുണ്ട് അപ്പം നമ്മളെല്ലാം കാ കണ്ടേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഒരു കുട്ടിയെ നല്ല രീതിക്ക് കൊണ്ടുവരണമെങ്കിൽ ആ കുട്ടിക്ക് നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതിൽ ദോഷവശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടിയെ വിളിച്ച് അടുത്തിരുത്തി അതിൻ്റെ നല്ല വശങ്ങൾ പറഞ്ഞുകൊടുക്കുക ആ കുട്ടി എന്ത് കാര്യവാണ് ചെയ്തത് എന്ത് തെറ്റാണ് ചെയ്തത് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലാതെ എല്ലാരുടെയും മുമ്പിലിട്ട് കുട്ടിയെ വഴക്ക് പറയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാനസിക വളർച്ചയും അത് പിന്നൊരു സമൂഹത്തിലേക്ക് മുന്നോട്ടു വരാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതായി മാറാറുണ്ട് പിന്നെ പല സ്കൂളിലും നമുക്ക് ഇപ്പോൾ സ്മാട്ട് ക്ലാസ് റൂമും അതിൻ്റെ ഉപയോഗെമൊക്കെ ഉള്ളോണ്ട് കുട്ടികൾക്ക് പുതിയ പുതിയ ടെക്നോളജികളും ടെക്നിക്കുകളൊക്കെ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഈ സ്കൂളിൽ ഇല്ലാത്തതെന്ന് പറയുന്നത് മിക്ക സ്കൂളുകളിലും ഇതുപോലെ തന്നെ കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും ശാരീരിക വളർച്ചയ്ക്കും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള പരിപാടിൾ ഡ്രില്ല് പോലത്തെ പരിപാടികളൊക്കെ ഇപ്പം പല സ്കൂളുകളിൽ ഇല്ലാതാവുന്നുണ്ട് കാരണം ഒരു വിഷയം പഠിപ്പിച്ച് തീരാൻ സമയം വേണം അത് കൊണ്ട് എന്നാൽ ഡ്രില്ല് പീരിഡ് കട്ട് ചെയ്യുക അപ്പതൊക്കെ കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയേയൊക്കെ അത് ബാധിക്കാറുണ്ട് അപ്പം അതൊക്കെ മാറ്റി നമ്മൾക്ക് കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടുദിവസം രണ്ടു പീര്ഡ് ഡ്രില്ലിനായിട്ട് നമ്മൾ മാറ്റിവെക്കണം അങ്ങനെ നമുക്ക് കുട്ടികളെ മുമ്പോട്ടേക്ക് കൊണ്ട് വരാൻ വേണ്ടി സാധിക്കും